ഞാൻ ഒരു ലൈവ് മോഡൽ നോക്കി വരച്ചിട്ടില്ല അതേപോലെ ഒരു നിർജീവമായിട്ടുള്ള വസ്തുക്കൾ ഞാൻ നോക്കി വരച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കറക്റ്റ് അതിൻ്റെ ഒരു നമ്മളിപ്പം ചിത്രം വരയ്ക്കുകയാണെങ്കിൽത്തന്നെ നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അത് ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ചിത്രം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കണം എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് എത്ര രീതിക്ക് ഉണ്ട് ഇതൊക്കെ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് എഡ്ജും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് പ്രോപ്പർ ആയി നോക്കിവെച്ചതിന് ശേഷം നമ്മൾ വരയ്ക്കുക ഇപ്പം നമുക്ക് ഒരു ചിത്രം നമ്മൾ നോക്കി വരയ്ക്കുന്നില്ലേ അപ്പം നമ്മൾ ആ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആണ് ആ ഒബ്ജക്റ്റിലേക്ക് ശ്രദ്ധിച്ച് അതിൻ്റെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഡിഫറൻസ് കാര്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ മായിച്ച് പിന്നെയും വരച്ച് ആ ഒരു നമ്മൾ നോക്കി വരയ്ക്കുന്ന ആ ഒബ്ജെക്റ്റിൻ്റെ അതേ റിസൽട്ട് തന്നെ നമുക്ക് ചിത്രത്തിലും വരുത്തിക്കാനുള്ള ഒരു നമുക്ക് അങ്ങനെത്തെ ഒരു ഇത് കൊള്ളിക്കണം നമ്മൾ അങ്ങനൊക്കെയാണെങ്കിൽ കറക്റ്റ് നോക്കിയും കണ്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല രീതിക്കുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടും ശ്രദ്ധിച്ചൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അത് ഒക്കെ നല്ല ഹെൽപ്ഫുള്ള് ആണ് അതുപോലെ റബ്ബറോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തതിൽ അതും ഒരു നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നോക്കി വരക്കാൻ സംഭവം ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചിത്രം കിട്ടണമെന്നില്ല നമ്മൾ നല്ല നന്നായിട്ട് ബുദ്ധിമുട്ടും നമുക്ക് ചിലപ്പം ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും നമുക്ക് ക്ഷമ വേണം ക്ഷമയാണ് മസ്റ്റ്